അതെ ഞാൻ പാലക്കാടാണ് ആ എൻ്റെ വീടും അവിടെ തന്നാണ്

ഇപ്പം ഇവിടെക്ക് വന്നതാണ് ഇപ്പം പാലക്കാട് പോകാൻ ഇപ്പം നമുക്ക് മലമ്പുഴ ഡാമ് കാണാം പിന്നെ നമ്മളുടെ കോളേജിൻ്റെ അടുത്ത് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പാട്ണ്ട് നമുക്ക് ഒറ്റപ്പാലം വരിക്ക കോഴിക്ക ഡാം വരിക്കാശ്ശേരി മന ഒക്കേ ഉണ്ട്

ഒരു ആ ഒരു മണിക്കൂറിൽ ഒന്നര മണിക്കൂർ അ അതെ അതെ അവിടെ തന്നെ എനിക്ക് ആ ആ കോളേജിൽ പഠിച്ചിട്ടുണ്ട് നമ്മളെ ഒരുപാട് പരിചയകാരവിടെ പഠിക്കണുണ്ട് കോളേജൊക്കെ അടിപ്പൊളിയാണ് എം ബി എക്കാൾ കുഴപ്പമില്ല ഒരു പാട് പേർ ഈ അടുത്ത് തന്നെ കാണാൻ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം എല്ലാം കവറ് ചെയ്ത് തരാം കാരണം വലിയ ദൂരമില്ലല്ലോ ഒന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് യാത്ര പോലൊക്കെ ആ അത് തന്നെ അമ്പലം ഉണ്ട് അതും നമ്മുടെ കോളെജിന്ന് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരോള്ളു പൂരോക്കെ പൂരോക്കെ ഭയങ്കര ഫേമസാണ് ആ അതെന്നെ അതന്നെ പൂരോക്കേ ഭയങ്കര ഫേമസാണ് ആ ഒരു ദിവസം കൊണ്ട് തീരാവുന്ന സാധനങ്ങളെ ഉള്ളു ആ നെല്ലിയാംപതിക്കൊരു ആ പത്ത് മുപ്പത് കിലോമീറ്ററിന് അടുത്ത് ഉണ്ടാകുന്നാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ നോക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം ഷർട്ട് ആ ആ ഞാൻ ഞാനിപ്പതാ എം ബി എ കഴിഞ്ഞിട്ട് ഞാൻ ഉത്സവോക്കെ കണ്ടിങ്ങനെ ഒരു ഗൈഡായിട്ട് ഇങ്ങനെ നിക്കുക പോണു ടൂറിസ്റ്റ് ആ നല്ല സ്ഥലം മീൻസ് പിന്നെ നമുക്ക് ഫ്രണ്ട്സായിട്ട് പോകാൻ പറ്റിയൊരു അടുത്തന്നൊരു സ്പോട്ടുണ്ട് അവിടെ നമ്മുടെ പത്തടി പാലാ പത്തടി പാലക്ക് പോയി കഴിഞ്ഞാന്നാ അവിടെ മറ്റെ അകരക്കാട് ഒരു ചെക്ക് ഡാമുണ്ട് ഫ്രണ്ട്സായിട്ട് പോകാൻ പറ്റിയ എൻജോയ് പറ്റിയ സ്ഥലമാണവിടെ ആ അറിയാം കുളിക്കാൻ കുറച്ച് ആ നീന്തലോക്കെ അറിയാവുന്നവർക്ക് പോകാം പറ്റുള്ളു എന്നാലും കുഴപ്പമില്ല വലിയ ആഴമൊന്നും ഇല്ല നാട്ടുകാർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഇതുവരെ അങ്ങാനൊന്നും കേട്ടട്ടില്ല കോളേജിന്ന് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഏഴ് ഏഴ് കിലോമീറ്ററുണ്ട്ന്നാണ് തോന്നുന്നത് ഏഴ് എട്ട് കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാകുവായിരിക്കും ആ അത്ര തന്നെ ഉള്ളു ഈ ഉള്ളേരിയേലായത് കൊണ്ട് അധികം നാട്ടുകാർക്ക് ശല്യമൊന്നും ഉണ്ടാകൂല്ല വേറെ ഇല്ല ഇതിൽ തന്നെ മെയ്നായിട്ടുള്ളത് ഇതൊക്കെ തന്നെയൊള്ളു ഇത് രണ്ട് ദിവസം കൊണ്ട് കണ്ട് തീരാവുന്നതൊക്കെ തന്നെ ഉള്ളു ഇല്ല ഇല്ല ഓക്കെ ആ എങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമുക്ക് എന്നാച്ചാൽ ഡേറ്റ് കണ്ട് തീരുമാനിക്കാം